ഇന്ത്യയില് കലാകാരന്മാരെ വളര്ത്താന് വേണ്ടിയിട്ട് ഇപ്പോൾ കലാമണ്ഡലങ്ങള് കൂടുതല് എല്ലാ ജില്ലയിലും ഇങ്ങനെ ആര്ട്സ്ന് ഇംപോര്ട്ടന്സ് കൊടുക്കുന്നൊരു സംഭവം കൊണ്ടുവരിക പിന്നെ അതേമാതിരി തന്നെ ഇപ്പോൾ ഡിജിറ്റല് ഡിജിറ്റല് സാധ്യത എങ്ങനെയെന്നു വെച്ചാല് ഇപ്പോൾ ഫിനാന്ഷ്യലി അത്രയ്ക്ക്

അതില് നോക്കിയിട്ടാണ് കുറേപേര് അത് യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ അങ്ങനെയൊക്കെ പഠിക്കണത് അപ്പോൾ അവര്ക്കൊക്കെ അതൊരു എന്താ പറയുക യൂസ്ഫുള് ആയൊരു കാര്യമാണ്